സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണാണ് അപ്പോ ഞാന് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് മേടിച്ചത് അപ്പം കയ്യിലൊരു ഫോണ് പിന്നെ എൻ്റെ ഫോണ് പെട്ടന്ന് പൊട്ടിപ്പോയി നിലത്ത് വീണപ്പോ പൊട്ടിപ്പോയി അപ്പ ഞാൻ പെട്ടന്ന് മേടിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് മേടിച്ചത് ആറായിരം രൂപ ആയി വിവോൻ്റെ ഒരു സെറ്റാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് അയാള് അത്യാവശ്യം പിന്നെ നല്ല ഫോണാണ് അതായത് അധികം യൂസൊന്നും ചെയ്തട്ടില്ല അവര് സാമ്പത്തികയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവര് ഒഴിവാക്കിയ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് എൻ്റെ കയ്യില് കിട്ടിയ പാടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ആദ്യം രണ്ട് ദിവസമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മൂന്നാം ദിവസമേന്ന് വച്ചാൽ ഭയങ്കര ഹാങ്ങ് എൻ്റെ ഫോണിലാണെങ്കില് ഹാങ്ങ് എന്ന് വച്ചിട്ടുണ്ടെൽ ഒരു വീഡിയോ ഫോട്ടോയോ ഒന്നും ഇല്ല കിട്ടിട്ടല്ലേ ഉള്ളൂ കുറച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളും വാട്സ്അപ്പും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രേ ഉള്ളൂ അപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് ഞാൻ ഷോക്ക് ആയിപ്പോയി ഇത്രയും നല്ലൊരു അതായത് നമ്മള് ഒന്നൂല്ലേൽ ആറായിരം രൂപൻ്റെരു ആറു ദിവസമെങ്കിലും മര്യാദക്ക് ഉപയോഗിക്കണ്ടേ പക്ഷെ അത് മര്യാദയ്ക്ക് നിന്നില്ല ഭയങ്കര ഹാങ്ങും പിന്നെ നമ്മള് കോളൊക്കെ ചെയ്ത് വരൻ അര മണിക്കൂറിൽ കൂടുതൽ കോള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാനത് ആ ചേട്ടന് തന്നെ തിരിച്ച് കൊടുക്കുകയും ചെയ്തു